നമസ്കാരം ടീച്ചർ ടീച്ചർ നമ്മുടെ ക്ലാസ്സിലെ ഫാന് പ്രവർത്തന രഹിതമാണ് നമുക്കിപ്പോൾ ഇത് കുറെ കാലമായി നമ്മൾ ഒരു കംപ്ലയിൻറ്റ് കൂടി തന്നു എന്നിട്ടും ഇത് ഇങ്ങനെതന്നെയാണ് ഉള്ളത് അത് ഞങ്ങൾക്കറിയില്ല പഴയ ഫാൻ ആയത് കൊണ്ടായിരിക്കും നമുക്ക് ഇതുവരെ നമ്മളാ ഫാനിനെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇപ്പം ആവശ്യം ആ ഫാന് കറങ്ങണം അതാണ് അത് ഞങ്ങൾക്കറില്ല ഞങ്ങളിത് വരെ ഫാനിനെ ഒന്നും ചെയ്തിട്ടില്ല പഴയ ഫാനായത് കൊണ്ട് താനെ പൊട്ടി പോയതായിരിക്കും അത് ഞങ്ങൾക്കറിയില്ല നമുക്ക് ഇപ്പം ആവശ്യം ഫാന് വേണമെന്നാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ചൂടാണ് നമ്മൾ ക്ലാസിലിരുന്ന് പഠിക്കാൻ വരെ സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല ആ ഫണ്ട് വരുന്നത് വരെ ക്ലാസ്സിൻ്റെ വേറേതെങ്കിലും ക്ലാസ്സുകളില് ഇരുത്തേണ്ടി വരും ടീച്ചറ് പരിഹരിക്കാൻ പറയുന്ന പോലെ തന്നെ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ പറ്റുമോ ടീച്ചർക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാ ക്ലാസ്സുകളിലും പല കോളേജുകളിലും ഏ സി വെക്കുന്നുണ്ട് നമുക്കും ഒരു ഏ സി വെക്കുവാണെങ്കില് അത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിനൊര് പരിഹാരം ഇല്ലെങ്കില് നമ്മള് മുകളിലേക്ക് ഇതിന് കംപ്ളേൻറ്റ് കൊടുക്കുന്നതായിരിക്കും ശരി ടീച്ചർ